എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് തയ്ക്കാനിഷ്ടം ചുരിദാർ തന്നെയാണ് ആ ചുരിദാർ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അതിനു വലിയ പാടൊന്നുമില്ല നമ്മളാദ്യം തന്നെ പിന്നെ ചുരിദാറിൻ്റെ ടോപ്പെടുത്ത് അത് നമ്മളത് നമ്മുടെ അളവിലാണെങ്കിൽ അത് വെട്ടി അത് എളുപ്പത്തിൽ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും അതുപോലെതന്നെ അതിൻ്റെ ആ പാൻറ്റും അങ്ങനെ തന്നെ അപ്പോള് അതില് ഏറ്റവും കൂടുതല് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നത് അതിൻ്റെ കഴുത്ത് നെക്ക് പല രീതിയിലുള്ള നെക്ക് വരുവല്ലോ അപ്പോള് അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ട് അത് അത് നമ്മള് അത് നല്ല ശ്രദ്ധയോടുകൂടി നമ്മളത് ചെയ്യുകയാണെങ്കില് നമുക്കത് എളുപ്പം ചെയ്യാന് പറ്റുന്നതാണ് അത് നമ്മള് ആ നെക്കെടുക്കുമ്പോള് ഒരുപാട് ഇച്ചിരി നല്ല ശ്രദ്ധയോടുകൂടി വേറെങ്ങും ആ ശ്രദ്ധ പോകാതെ ആ നെക്കില് നോക്കി നമ്മുടെ മനസ്സില് രൂപപ്പെട്ടു വരുന്നത് അത് എളുപ്പം നമ്മള് ചെയ്യുമ്പോള് നമുക്കത് എളുപ്പത്തിലത് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെട്ടതും എളുപ്പം തയ്ക്കാൻ പറ്റുന്നതും